ഞാൻ ഈയിടയ്ക്ക് മൈസൂർ പോയിട്ടുണ്ടായിരുന്നു കർണാടകം ജില്ലയിലെ ഒരു സ്ഥലമാണ് മൈസൂർ അപ്പോൾ അതിലെനിക്കേറ്റവും എന്നെ എക്സൈറ്റ് ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റും പിന്നെ അവിടുത്തെ സ്ഥലങ്ങളുടെ ഒരു ഒരു ഭംഗിയാണ് എന്നെ അതിൽ കൂടുതൽ അട്രാക്ട് ചെയ്തത് ഞാൻ ഈ വീഡിയോകളിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ് നമ്മളാ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് അപ്പോൾ അപ്പോഴാണെനിക്ക് അങ്ങോട്ട് പോവണം ആ സ്ഥലമൊന്ന് നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് അങ്ങനെ ഈയിടക്ക് അങ്ങോട്ടെനിക്ക് പോവാൻ പറ്റി മൈസൂർ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മ്യൂസിയം പിന്നെ അവിടെ ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് സന്ദർശിക്കാൻ പറ്റി നല്ലൊരു അനുഭവം ആയിരുന്നു കാരണം നമ്മളാ ഒരു അറിഞ്ഞിട്ട് ഇവിടുന്ന് വീഡിയോയിൽ കണ്ടിട്ട് പോയിട്ട് നമ്മൾ നേരിൽ കാണുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു എനിക്കത് പിന്നെ എനിക്ക് സന്ദർശിക്കാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമെന്ന് പറയണത് ഡൽഹിയിലെ ആഗ്രയാണ് അവിടുത്തെ അവിടെ താജ്മഹൽ അതാണ് എനിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്ത്യയില് അതുണ്ടായിട്ട് നമ്മളത് കാണാതിരിക്കാൻ പാടില്ലായെന്നൊരു ഇത് ഉണ്ട് അപ്പോൾ അത് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ട് അപ്പോൾ അടുത്തതായിട്ട് താജ്മഹലൊന്ന് വിസിറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹമാണുള്ളത്